പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് വ്യത്യാസമുണ്ട് അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും പഴയത്തെ പഴയ ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകളും വിദ്യാസാഗറിൻ്റെ പാട്ടുകളൊന്നും അല്ല ഇപ്പോഴത്തെ സുഷീൻ ശ്യാമിൻ്റെ പാട്ടും റെക്സ് വിജയൻ്റെ പാട്ടും അത് നമുക്ക് കേട്ടാലെ അറിയാം പക്ഷേ ഏതാണ് നല്ലത് ഏതാണ് ചീത്ത നമുക്ക് പറയാൻ പറ്റില്ല പാട്ടുകൾ ഓരോ കാലഘട്ടമനുസരിച്ച് വളർന്നും വന്നതാണ് അത് ഓരോ കാലത്തിൻ്റെ ആവശ്യമനുസരിച്ച് വളർന്നു വരുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു എണ്ണമാണ് പഴയതാണ് നല്ലതെന്നോ പുതിയതാണ് നല്ലതെന്നോ പറഞ്ഞു തീർക്കാൻ പറ്റില്ല പഴയ പാട്ടുകൾ പുതിയ പാട്ടുകളെല്ലാം നമുക്ക് ഒരുമിച്ച് കേൾക്കാൻ പറ്റും അത് ഇപ്പോൾ നമ്മളുടെ ഒരു ദിവസമനുസരിച്ച് നമ്മളുടെ ഓരോ മൂഡ് അനുസരിച്ച് നമുക്ക് ഇപ്പോൾ കേൾക്കാം ഇപ്പം ഒരു മഴയുള്ള സമയം ജോൺസൺ മാസ്റ്ററോ അല്ലെങ്കിൽ വിദ്യാസാഗറോ കേൾക്കുന്ന സുഖം ചിലപ്പോൾ സുഷീൻ ശ്യാം കേട്ടാൽ വരും എന്നില്ല പക്ഷെ വിഷമിച്ചിരിക്കുമ്പം കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ കുമ്പളങ്ങി നൈറ്റ്സെന്ന സിനിമയിലെ സുശീൻ ശ്യാമിൻ്റെ ചിരാതുകളൊക്കെ കേൾക്കുമ്പം നമുക്ക് വളരെ ഒരു ഒരു ആശ്വാസവും സമാധാനവും ഒക്കെ കിട്ടും ചെലപ്പൊ അത് പഴയ പാട്ട് കിട്ടുമ്പോ വരുന്നൊന്നും ഇല്ല അപ്പം എനിക്കി പാട്ടിനോട് താല്പര്യമുള്ളതുകൊണ്ടും പാട്ട് കേൾക്കാനും പാടാനുമൊക്കെ നല്ല ഇഷ്ടമായതു കൊണ്ടും ഞാൻ എല്ലാം പാട്ടും അത്യാവശ്യം കേൾക്കാൻ അത്യാവശ്യം അല്ല നന്നായിട്ട് കേൾക്കാറുണ്ട് എല്ലാ പാട്ടിനും അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഗാനങ്ങളിൽ കൊടുക്കാറുണ്ട്

അവർക്കുണ്ടായിരുന്ന വിവരവും കാര്യങ്ങളും വച്ച് അത്രയും നല്ല രീതിക്ക് പാട്ടും സിനിമകളും ഇറക്കിയിട്ടുണ്ട് പിന്നെ കാലം വളരുന്നത് അനുസരിച്ച് ഓരോ ആൾക്കാർ ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളിലെ പാട്ട് കേട്ടും അത് ഒക്കെ ഇൻഫ്ലൂവൻസ്ഡായി ഇപ്പോഴത്തെ പാട്ടുകൾ റാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പഴയ പാട്ടുകളിൽ റാപ്പ് അങ്ങനെ ഇല്ല അത് വളരെ സ്ലോ ആയിട്ടും വളരെ മെലഡി കൂടിയ പാട്ടുകളായിരുന്നു പണ്ട് പക്ഷെ ഇപ്പം നല്ല ഫാസ്റ്റായിട്ടും പിന്നെ ദേഷ്യമുള്ള പാട്ട് റാപ്പ് സങ്കടമുള്ള പാട്ട് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഒരുപാട് ഡിഫറെൻ്റ് ജോണേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാ കാലഘട്ടത്തിലും പാട്ടിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എല്ലാ കാലത്തും വളരെ നല്ല പാട്ടുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്